അതിഥികളെ സത്കരിക്കുക എന്ന് വെച്ചാല് നമുക്കറിയാമല്ലോ അതിഥി ദേവോ ഭവ എന്നാന്ന് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ദൈവത്തെപോലെ അല്ലെങ്കിൽ പോലും അതിഥികളെ നമ്മൾ നല്ല രീതിയിലാണ് സത്കരിക്കാറുള്ളത് നമ്മളൊരു കുടുംബക്കാരെപോലെ നമുക്ക് അതിഥികളെ കാണാൻ പറ്റില്ലല്ലൊ അതുകൊണ്ട് തന്നെ അവര്ക്ക് അവരുടെ പ്രിഫറൻസ്സെന്താണോ അല്ലെങ്കില് എന്തൊക്കെയാന്നന്വേഷിക്കും ആദ്യം വന്ന അതിഥികളെ നമ്മൾ സ് ഇരുത്തും നല്ല അതാക്കീട്ട് നമ്മൾ നമ്മളുടെ രീതിയില് മ്മ ഇരുത്തി അവർക്ക് വേണ്ട പ്രീഫെറൻസ്സ് നമ്മൾ ചോദിക്കും എന്തെങ്കിലും ചായ കാപ്പി എന്തൊക്കെയാണ് വേണ്ടത് പിന്നെ കഴിക്കാൻ എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ അവര് സാധാരണ ഒരാൾക്കാരെന്നാ പറയുന്നത് കഴിക്കാൻ വേണ്ട നമ്മളിങ്ങനെ വേണ്ട മറ്റ് വീട്ടില് പോയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റൂല്ല എന്ന രീതിയില് നമ്മ ഒന്നും വേണ്ട ഒന്നും വേണ്ടാന്ന് പറയും പക്ഷെ എന്നാലും നമ്മളുടെ രീതീന്ന് അനുസരിച്ചാല് അവർക്ക് വേണ്ട ചായ കാപ്പി എന്തെങ്കിലും കൊടുക്കുക അല്ലെങ്കില് അതിൻ്റെ കൂടെ എന്തെങ്കിലും പലഹാരങ്ങള് കൊടുക്കുക അവര് തിന്നുന്നില്ലെങ്കിൽ പോലും നമുക്കത് സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്കത് ഒര് കൊടുക്കാൻ പറ്റും പിന്നെ അവരെ സത്ക്കരിക്കേണ്ട അവർക്ക് നമ്മോ അവരോട് തന്നെ അവരുടെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചും പറഞ്ഞും അല്ല ഇരിക്കും അല്ലാതെ അ വന്നിരുന്ന് ചായ കുടിച്ച് പോയ്ക്കൊ എന്നുള്ളൊരു ഇതല്ല നമൾക്ക് ഉണ്ടാവുന്നത് അവരോട് അവരുടെ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ വീട്ട്കാരെക്കുറിച്ചും അവര് എന്ത് വന്ന കാര്യത്തെക്കുറിച്ചെല്ലാം സംസാരിച്ച് വീടിൻ്റെ ചുറ്റുപാടെല്ലാം കാണിച്ച് കൊടുത്ത് അങ്ങനൊരു സൽക്കരിക്കല് പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം വരുമ്പോൾ എന്തായാലും വന്ന ക്ഷീണം ആവുന്ന സമയത്ത് കേറി വരുന്ന നല്ല ക്ഷീണം ഉണ്ടാകുമല്ലൊ ആ സമയത്ത് നമ്മൾ കുടിക്കാൻ എന്തെങ്കിലും ഇപ്പോൾ എന്താണവർക്ക് വേണ്ടത് നമ്മ ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അത് പറ്റില്ല അപ്പോൾ നാരങ്ങ വെള്ളം അല്ലെങ്കില് ചായ കാപ്പി അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും രസ്നാ പോലത്തെ എന്തെങ്കിലും കലക്കി കൊടുത്ത് അങ്ങ അങ്ങനുള്ള കുറെ കാര്യങ്ങള് ചെയ്യ്ണം പിന്നെ പറഞ്ഞാൽ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ബിസ്ക്കറ്റോ പഴമോ കേക്കോ അങ്ങനത്തെന്തെങ്കിലും കാര്യങ്ങള് അവരുടെ മുമ്പില് വെക്കണം തിന്നില്ലെങ്കിപ്പൊലും നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ അത് വയ്ക്കണം പിന്നെ പാചകത്തിനെക്കുറിച്ച് പറയുമ്പോൾ പാചകം ചെയ്യാൻ അത്ര താല്പര്യമുള്ള ആളല്ലെങ്കില് പോലും ചില കാര്യങ്ങള് എനക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യും ഇപ്പോൾ പെട്ടെന്നൊരു കാരൻ ആ എനിക്ക് ഇത് ചെയ്യണം തിന്നണം എന്ന് തോന്നിക്കഴിഞ്ഞാല് ഞാൻ ചെയ്യാറുണ്ട് പിന്നെ കൊറോണ സമയത്താണ് കൂട്തൽ പാചകത്തിലേക്ക് ഞാൻ പോയത് എന്താ വെച്ചാല് ആ സമയത്താണല്ലൊ എല്ലാവരും വീട്ടിലുള്ള സമയം അപ്പോൾ അച്ഛനും അമ്മയ്ക്കും വീട്ട്കാർക്കും എല്ലാവർക്കും കൂടി ഞാൻ ചെയ്യാണ്ട് ഉത്ഫയാ കൂടുതൽ ചെയ്യുന്നത് വൈകുന്നേരത്തെ സ്നാക്കസാന്ന് രാവിൽത്തെ ചായ ഉച്ചക്കൽത്തെ ചോറ് അങ്ങനൊന്നുല്ല വൈകുന്നേരത്തെ സ്നാക്ക്സ് ആന്ന് കൂടുതല് ചെയ്യുന്നത് സ്നാക്സില് കൊറോണ സമയമാകുമ്പോൾ ഓരോ ദിവസ്സവും ഓരോ സ്നാക്ക്സ് ഞാൻ ഉണ്ടാക്കലുണ്ട് ഓരോ പരീഷണങ്ങളാണ് യൂറ്റൂബ് നോക്കി ക്കൊണ്ട് നമ്മള് പരീക്ഷിച്ച് പരീക്ഷിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് ഏനക്കേറ്റവും കൂടുതല് ആക്കാനിഷ്ടം എന്ന് പറയുന്നത് പഴംപൊരിയാന്ന് പഴം പൊരി എത്ര ആക്കിയാലും മടുക്കില്ല കാരണം അറിയില്ല എനക്കറിയില്ല എന്തോ ഇഷ്ടമാണ് പഴം പൊരിയോടെല്ലാം പഴം പൊരി ഉണ്ടാക്കും പിന്ന രസഗുള രസഗുലയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പരീക്ഷണം പരീക്ഷിച്ചിട്ടുണ്ട് കുറെ അങ്ങനെ കുറെ കാര്യങ്ങള് പരീക്ഷിച്ചിട്ടുണ്ട് മറ്റുള്ളവരൊക്കെ ആയിട്ട് പാചകം ചെയ്യാൻ ഇഷ്ടമുള്ള വിഭവമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിഭവമായിട്ട് നമുക്കൊരു ഇപ്പം ലെഞ്ചിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊ അങ്ങനെ വിഭവമെന്ന് പറയാനാണെങ്കിൽ നമുക്ക് കോഴിക്കറി കോഴിക്കറി നല്ല പാങ്കില് കുക്കെയും അത്ര കോഴിക്കറി ഒര് രീതീലല്ല ഞാൻ കൂക്ക് ചെയ്യുന്നത് മീൻസ് ഒര് രീതി ഇപ്പോൾ ചിക്കൻ കറി കറി രാവിലെ മുതലേ വൈകുന്നേരം വരെ കറി പിറ്റേ ദിവസം കറി ആ രീതിക്കല്ല കുക്ക് ചെയ്യുന്നത് ചിക്കൻ വാങ്ങി ക്കഴിഞ്ഞാല് അതിനെ കുറച്ച് പാട്ട്സ്സ് പാട്ട്സ്സ് ആക്കിയിട്ട് നമ്മോ ഒര് കറി ഉച്ചക്കേക്ക് വേണ്ടി ഉണ്ടാക്കും പിന്നെ വേറൊര് രീതിയില് ആ അതേ ഇതിനെ വേറൊര് രീതിയില് നമ്മ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കും പിന്നെ വേറൊര് രീതീയിലത് നമ്മൾ ചിലപ്പം പിറ്റേ ദിവസം രാവിൽത്തെ ദോശക്കൊ എന്നിനെങ്കിലും കുടി കൂടെ കഴിയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കും പിന്നെ ഓരോ സ്റ്റൈൽലാണത് ആക്കണത് ഇപ്പോൾ ചില്ലി ചിക്കൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഗോബി മഞ്ചൂരിയൻ റൈ ചില്ലി മഞ്ചൂരി ട്രൈ ചെയ്തിട്ടുണ്ട് പെപ്പർ ചിക്കൻ ട്രൈ ചെയ്തിട്ടുണ്ട് എനിക്ക് കുറെ ചിക്കൻ ൻ്റെ കുറെ വിഭവങ്ങള് ട്രൈ ചെയ്യണം എന്നുണ്ട് പിന്നെ എന്തായാലും നമ്മ അതിഥികളെല്ലാം വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ മുൻകൂട്ടി അറിയുവല്ലോ നമ്മൾ ഇന്നാൾക്കാര് വരുന്നുണ്ട് വീട്ടിലേക്ക് നാളെ അപ്പോൾ നമക്ക് ചിക്കൻ വാങ്ങി വെക്കാം പക്ഷേ പെട്ടെന്ന് വിളിച്ച് പറയും നമുക്ക് പെട്ടന്ന് ആവ് ഞാ ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പെട്ടെന്ന് വിളിച്ചു പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിക്കൻ കിട്ടണം എന്നില്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തില് സാധാരണ നമ്മുടെ നാടൻ വിഭവം അങ്ങനെ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം പുട്ട് എന്തായാലും ഒര് വീട്ടില് ഉണ്ടാവുന്നതാണല്ലൊ അപ്പോൾ മുട്ട ഓമ്ലേറ്റ് മുട്ടയിൽ തന്നെ പല വിഭവങ്ങള് നമുക്കിണ്ടാക്കാൻ പറ്റും അപ്പം അങ്ങൻത്തെ കുറെ കാര്യങ്ങളിഷ്ടമാണ് കുറെ യൂറ്റുബ് നോക്കി നമ്മൾ കുക്കിങ്ങ് പഠിയ്ക്കുന്നുണ്ട് അപ്പോൾ യൂറ്റുബ് എറ്റവും ഉപകാരപ്പെടുന്ന ഒരാപ്പായിട്ട് എനക്ക് തോന്നിയിട്ടുണ്ട് കുക്കിങ്ല് കുക്കെയാൻ ഭയങ്കര ഇഷ്ടാന്ന് പക്ഷേ എപ്പഴും എപ്പഴും അങ്ങനെ കൂക്ക് ചെയ്യാൻ ഇഷ്ടമല്ല എനക്ക് തോന്നുമ്പം മാത്രം ഞാൻ കുക്കെയും അതിപ്പോൾ എന്തായാലും രാവിൽത്തെ ചായക്കായാലും ഉച്ചക്ക് ലെഞ്ചിനെന്തെങ്കിലും കറി പിന്നേ ഒര് സമയത്തെനക്ക് ഭയങ്കരായിട്ട് സോയാബീന് ഇഷ്ടപ്പെട്ടിട്ട്ണ്ട് സോയാബീൻ സോയാബീൻ പൊരിച്ച് തിന്നാതെ അതിനെ ഒരു ഫ ഫ്രൈ പോലെ ആക്കി ഉള്ളി എല്ലാം ഇട്ട് ഒരു ചിക്കൻ ആക്കുന്ന രീതീ തന്നെ സൊയാബിന് ആക്കിയിട്ടുണ്ട് അപ്പം ആ ഒര് സമയത്ത് എനക്ക് സൊയാബീല്ലാ ഭയങ്കര ഇഷ്ട്ടവോണ്ടായി അപ്പോൾ പെട്ടന്നൊരഥിതി എല്ലാം വരുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും വീട്ടിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ പിന്നെ അതിഥികളെ സൽക്കരിക്കുമ്പോൾ ഏറ്റവും കൂടുതല് ശ്രദ്ധികേണ്ട കാര്യം എന്ന് വെച്ചാല് അവരെന്ത് വേണ്ടാന്ന് പറയുമ്പഴും നമ്മുക്ക് നമ്മുടെതായ രീതി ഉണ്ട് അതോണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന നമ്മടെ ഉത്തരവാദിത്താമാണ് അപ്പോൾ അവര് നമ്മോ നമ്മൾ ഇപ്പം ഒരു വീട്ടിൽ ചെല്ല് കേറി ചെല്ലുമ്പം അവരെ ബുദ്ധിമി മുട്ടിക്കണ്ട വെച്ചിട്ടു നമ്മളൊന്നും പറയലില്ല എനിയ്ക്കിത് വേണം അത് വേണം ന്ന് പറയില്ല പക്ഷേ അതറിഞ്ഞത് ചെയ്യണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാലെ ഒരു നല്ല അതിഥി സൽക്കാരം എന്ന് പറഞ്ഞാൽ അതാന്ന് അല്ലാതെ വന്നിരുന്ന് ആ ഒക്കെ കാര്യങ്ങള് പറഞ്ഞ് ചായ പോലും കൊടുക്കാത്തത് ഒരു മര്യാദ അല്ല അപ്പോൾ നിങ്ങളിന്ന് വൈകുന്നേരം വരെ ഉണ്ടാകുവോന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് ആ ഉച്ചക്കത്തെ ലെഞ്ച് വൈകുനേരത്തെ ഡിന്നറെല്ലാം ഉണ്ടാക്കി മുന്നെ വെക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് കാര്യം ഓക്കെ അതിഥികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മോ ചായയാന്ന് കൂടുതല് കൊടുക്കാറുള്ളത് പക്ഷേ ചൂടിലാരിക്കും അതിഥികള് കയറി വരുന്നത് ചു ഈ നടന്ന് ചൂട് വെയിലത്ത് നടന്ന് വീട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്നൊരു ചായാന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവര് ആ ഓക്കെ നിങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കണ്ടാന്ന് വെച്ച് അവര് പറയും ആ ഓക്കെ മതി ചായയാണെങ്കിൽ ചായ പക്ഷേ നമുക്കൊരിതല്ലല്ലൊ അപ്പോൾ ചൂട് സമയത്തെല്ലാം ഏറ്റവും കൂടുതല് നാരങ്ങ വെള്ളം തണുത്തെന്തെങ്കിലും ആയിട്ടുള്ള കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം എന്നാല്ലല്ലെ അവർക്കും ആ ഒരു ചൂടാ ആ കയറി വന്നുള്ളവർക്കൊരു ഫ് റിഫ്രഷ്മെൻട് ഉണ്ടാകു പിന്നെ അതിൻ്റെ കൂടെ കഴിയ്ക്കാന് ചൂട് പലഹാരം കൊണ്ട് വെച്ച് കഴിഞ്ഞാല് അതും അവർക്കൊരു മടുപ്പായിരിക്കും ലൈറ്റായിട്ട് എന്തെങ്കിലും ബിസ്ക്കറ്റൊ അല്ലെങ്കില് പഴം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വയ്ക്കുന്നതാരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കാരണം അവർക്ക് തണുപ്പ് കിട്ടും കയറി വന്ന പാടെ അവർക്ക് ഒരു റിഫ്രഷ്മെൻടിനു ആയിട്ട് അവർക്കൊരു ഇതെന്ന് പറയുന്നത് ഇങ്ങൻത്തെ കൂൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രിങ്ക്സ്സോ അല്ലെങ്കില് ഇങ്ങനത്തെ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണവും വല്ലതും ആയിരിക്കും അതിഥികളെ ഏറ്റവും കൂടുതല് മര്യാദ ആയിട്ട് നമ്മൾ സൽക്കരിക്കേണ്ടതുണ്ട് അല്ലെങ്കില് അത് ഭയങ്കര ഭയങ്കര പ്രശ്നമായിരിക്കും കാരണം നമ്മൾ പണ്ടേ പണ്ട് മുതലേ പഠിച്ചോണ്ടിരുന്നത് അതിഥി ദേവോ ഭവ അഥിതി ദേവോ ഭവ അതിഥിയെ ദൈവത്തെ പോലെ കാണുക അങ്ങനെല്ലാം പഠിച്ചത് അപ്പോൾ ദൈവത്തെ പോലെ തന്നെ കണ്ട് ദൈവത്തെ പോലെ കാണുന്നില്ലെങ്കില് പോലും അതുപോലെ കണ്ട് ആ ഒര് രീതിക്കുള്ള ഇതെല്ലാം അതിഥികൾക്ക് കൊടുക്കണം അല്ലെങ്കില് അവരെന്ത് വിചാരിക്കും അങ്ങനൊരു വിചാരം കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നാലേ അതിഥികളെ നല്ലൊരു രീതിക്ക് സൽക്കരിക്കാൻ നമുക്ക് പറ്റു